നാല് ആറ് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ് ഇരുപത് മൂന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് അഞ്ച് അഞ്ച് രണ്ടായിരത്തി അഞ്ച് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന്